ഇപ്പോൾ മഴക്കാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് ജൂണ് തൊട്ട് അതായാതൊരു ഏകദേശം ആഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസം വരേ നമുക്ക് മഴ കിട്ടുന്നതാണ് ആ അപ്പോൾ മഴക്കാലത്തേ കുറിച്ച് പറയുകയാണെങ്കില് നല്ല രീതിയിലുള്ള ഒരു മഴയും കാര്യങ്ങളൊക്കേ കഴിഞ്ഞതിൻ്റെ മുന്നത്തേ വർഷം വരേ നല്ല രീതിയില് മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴ മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കേ ആയിട്ടുണ്ടായിരുന്നു കാരണം എന്നാൽ മഴക്കാലം എന്നുപറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും വെള്ളപൊക്കം ഉരുൾപൊട്ടല് മരം മറിഞ്ഞു വീഴല് അങ്ങനത്തേ കാര്യങ്ങളൊക്കെയുള്ളതുകൊണ്ട് നമുക്ക് എവിടെയും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ആ സമയങ്ങളിലൊക്കേ അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകണമെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടില് ഒരു പ്രളയം വന്നിട്ട് നമ്മള് എന്താ പറയുക പ്രദേശങ്ങളൊക്കേ മുങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് എവിടെയും ഇറങ്ങാനും പറ്റുകയില്ല നമ്മുക്കിപ്പം ആകെയുള്ളത് ടി വി ന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് പക്ഷേ ചില സമയങ്ങളിൽ കരൻറ് ഉണ്ടാകുകയില്ല പിന്നേ നമ്മളുടെ മൊബൈൽ എല്ലാം ഓഫ് ആയിരുന്നു അപ്പം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകള് കാര്യങ്ങളൊക്കേ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരേ നമ്മള് എന്തെങ്കിലും ഇപ്പോൾ അന്വേഷിക്കണമെങ്കിൽ തന്നേ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് നമ്മള് അന്വേഷിക്കണമെങ്കിൽ തന്നേ ഫോണ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നേ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കേ ആയിരുന്നു അപ്പോൾ നല്ല രീതിയില് നമുക്ക് മഴക്കാലത്ത് എല്ലാ രീതിയിലും എന്താ പറയാ മഴ നല്ല രീതിയില് ബാധിച്ചിട്ടുണ്ടായിരുന്നു